ചെറുകിട സംരംഭം ആയാലും വൻകിട സംരംഭം ആയാലും ഏതാണെങ്കിലും അതില് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം പുതുതായിട്ട് ബിസിനസ്സിലേക്ക് കടന്ന് വരാന് ഒരാൾക്ക് മാർക്കറ്റിന് എന്ത് വേണം ആൾക്കാർക്ക് എന്ത് വേണമെന്ന് ശരിക്ക് പറഞ്ഞാൽ അവർക്കറിയില്ല നോക്കി നടന്ന് പഠിക്കുന്നതിലും പുറത്തിറങ്ങി ബാക്കിയുള്ളവരോട് ചോദിക്കുന്നതിലും ഒത്തിരി വ്യത്യാസമുണ്ട് ഈ സമയം ഇപ്പം നമുക്കുള്ളൊരു ഉപകാരം എന്താന്ന് വെച്ചാൽ സാങ്കേതികവിദ്യ അതായത് മൊബൈല് ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്കൊരു വിരൽ തുമ്പിൽ തന്നെ അറിയാൻ സാധിക്കും പെട്ടെന്ന് ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ വില കൂടിയാലോ കുറഞ്ഞാലോ അത് നമുക്കറിയാൻ പറ്റും മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധനങ്ങള് വിറ്റഴിക്കാനും എന്ത് പ്രൊഡക്റ്റൊ ആയിക്കോട്ടെ വിറ്റഴിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള അഡ്വർടൈസ്മെൻ്റാണ് ഒരിക്കലും നമ്മളൊരു ഷോപ്പിട്ടിട്ടോ അല്ലേൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയിട്ടോ നമുക്ക് അതിന് മുമ്പില് നിന്ന് ഫുൾ ടൈം വിളിച്ച് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇന്ന പോലത്തൊരു സാധനം വിൽക്കുന്നുണ്ട് ഇന്നപോലെ വാങ്ങു ഉപയോഗിക്കു എന്നില്ല ആർക്കും അതിന് സമയില്ല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാങ്കേതിക വിദ്യ ഉള്ളത് മൂലം ഒരു പരസ്യം അതിന് തുടർന്ന് കാണിക്കുക ആണെങ്കില് കണ്ടിട്ടോ കേട്ടിട്ടോ ആൾക്കാർക്ക് അത് വാങ്ങാനും ഒന്നല്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിച്ചെന്ന് കഴിയുമ്പം പണ്ടെവിടെയൊ കേട്ടൊരു ഓർമ്മ വെച്ചിട്ട് ആണെങ്കിൽ പോലും സാധനം വാങ്ങാനോ അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനോ പറ്റും അത് സാങ്കേതിക വിദ്യ ബിസിനസ്സിൻ്റെ വളർച്ചക്ക് നല്ല രീതിക്ക് സഹായിക്കുന്നുണ്ട്